യാത്രകൾ ഇഷ്ടമില്ലാത്ത മനുഷ്യന്മാരില്ല എപ്പോഴും യാത്രകൾ ചെയ്ത് കൊണ്ടിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും നമ്മുടെ ജീവിതമായിട്ടുള്ള ഡെയിലി ജീവിതത്തിന് ഇടയിൽ വരുന്ന തിരക്കുകളിൽ നിന്നൊക്കെ ഉള്ളൊരു സന്തോഷം ഒരു സമാധാനം കിട്ടുന്നത് യാത്രകളിൽ നിന്നായിരിക്കും എനിക്ക് യാത്രകൾ ഒത്തിരി ഇഷ്ടമുള്ള ഒരു ആളാണ് കൂടുതലും പച്ചപ്പും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും വെള്ളച്ചാട്ടം പിന്നെ കൂടുതൽ കടൽക്കര ഇതൊക്കെയാണ് കൂടുതൽ ഇഷ്ടമുള്ള യാത്രകൾ ചെയ്യാൻ ഇഷ്ടമുള്ള സ്ഥ ബെയ്സ് സ്ഥലങ്ങളുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് പിന്നെ മൂന്നാറ് വളരെ ഇഷ്ടമുള്ള ഒരു സ്ഥലാണ് അതായത് മുദ്രപ്പുഴ നല്ല തണ്ണി കുന്തള എന്നീ മൂന്ന് ആറുകളുടെ സംഗമ സ്ഥാനമാണ് മൂന്നാർ എന്ന് പറയുന്നത് ഒത്തിരി തേയി ല തോട്ടങ്ങളും മൂടൽ മഞ്ഞുകളും അരുവികളും വെള്ളച്ചാട്ടങ്ങൾ കൊണ്ടൊക്കെ ഒത്തിരി സംഭന്നമാണ് മൂന്നാറ് എപ്പോൾ ചെന്നാലും നമുക്ക് അവി ട്രെ ഒരൂ തണുപ്പ് അന്തരീക്ഷമായിരിക്കും കാണാനായാലും ഒത്തിരി സ്ഥലങ്ങൾ നമുക്ക് മൂന്നാറിലുണ്ട് ഏറ്റവും വലിയ ഒരു വിനോദ സഞ്ചാര കേന്ദ്രം തന്നെയാണ് മുതിർന്നവർകൊക്കെ പറയുന്നത് പിന്നെ പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ ഒര് അട്രാ അട്രാക്ഷൻ ആകർഷണം എന്ന് പറയുന്നത് ഇരവിക്കുളം ദേശീയോദ്യാനമാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയാണ് പിന്നെ നമുക്ക് ഒത്തിരി വരയാടുകളെ ഒക്കെ കാണാം അതുപോലെ തന്നെയുള്ളതാണ് ആനമുടി ഏറ്റവും വലിയ കൊടുമുടിയാണ് ആനമുടി രണ്ടായിരത്തി എഴുന്നൂറ്റി ആറ് എഴുന്നൂറ് മീറ്ററോളം ഉയരമുണ്ടതിന് പിന്നെ മാട്ടുപ്പെട്ടി ഡാമുണ്ടവിടെ പള്ളിവാസൽ അത് ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ ജല വൈദ്യുത പദ്ധതിയാണ് പിന്നെ ടോപ് സ്റ്റേഷൻ ട്ടീ മ്യൂസിയം ഒരു ട്ടീ ഒരു തേയില നുള്ളി അത് എങ്ങനെ പ്രോസെസ് ചെയ്ത് നമുക്ക് ഒരു ചായപ്പൊടി രൂപത്തിൽ കിട്ടണമെന്നൊക്കെ നമുക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഈ മൂന്നാറിനോട് ചേർന്ന് തന്നെ ഹരിത സാന്ദ്രമായ മലഞ്ചെരിവുകളും താഴ്വരങ്ങളൊക്കെ ഉള്ള മൂന്നാറിനെ മൂന്നാറിൻ്റെ തന്നെ ഉള്ളൊരു മറ്റൊരു സ്ഥലമാണ് വട്ടവട അവിടെ കൂടുതലും നമുക്ക് പച്ചക്കറിയാണ് കാണാൻ പറ്റുന്നത് അതുപൊലെ സ്ട്രോബെറി തട്ട് തട്ട് ലെയറ് ലെയറായിട്ട് കൃഷി ചെയ്യുന്നത് എപ്പോഴും അവിടെയും കാടിൻ്റെ ഒരു സൗന്ദര്യം വന്യ മൃഗങ്ങളെ ഒക്കെ ഇറങ്ങുന്ന ഒരു വന മേഖല കൂടിയാണ് വട്ടവട അവിടെ ഒത്തിരി ആൾക്കാർ കൃഷി ഉപജീവനത്തിൽ ജീവിക്കുന്നുണ്ട് സമുദ്ര നിരപ്പിൽ നിന്ന് ആറായിരം അടി ഉയരത്തിലാണ് വട്ടവട സ്ഥിതി ചെയ്യുന്നത് എപ്പോഴും ഒരു വർഷം മുഴുവനും എപ്പോഴും ഒരു സുഖകരമായ കാലാവസ്ഥയാണ് നമുക്ക് വട്ടവടയിൽ കാണാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ നല്ല ഒരു വിനോദ സഞ്ചാര മേഖലയാണ് വട്ടവട വട്ടവട എന്നു പറയുന്നത് ഇവടെ അപ്പോൾ നമുക്ക് ആ വട്ടവടയിൽ നിന്ന് കൊടയ്ക്കനാല് ടോപ് സ്റ്റേഷൻ മാട്ടുപ്പെട്ടി കാന്തല്ലൂർ മീശപ്പുലി മല എന്നൊക്കെ പറയുന്ന ഒത്തിരി സ്ഥലങ്ങള്ലൊക്കെ നമുക്ക് ചെല്ലാൻ പറ്റും ഏറ്റവും രസം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ കാടുകളോട് ചേർന്ന് പല തരത്തിൽ കൃഷിയിടങ്ങളിങ്ങനെ മനോഹരമായ ഒരു എണ്ണച്ചായം ചിത്രം പോലെ നമുക്ക് തോന്നിപ്പിക്കും അത് പോലെ യൂക്കാലിറ്റിപ്പിക്സ് പൈൻ വർഗത്തിൽപെട്ട മരങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപൂർവ്വമായ ചിത്രശലഭങ്ങളൊക്കെ നമുക്ക് ഈ വട്ടവടയിൽ കാണാൻ പറ്റും എപ്പോഴും ഒരു തണുപ്പായിരിക്കും ഏത് കാലാവസ്ഥയിലും നമുക്ക് പോകാനും ആസ്വദിക്കാനും ഒക്കെ നല്ല ഒരു സ്ഥലമാണ് പിന്നെ പറയുന്നത് ഒരു മേഖല കുമരകം ബോട്ടിങ്ങൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതൊരു ദ്വീപാണ് കായലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ദ്വീപ് ഒരു പക്ഷികളുടെ പറുദീസയായി ഇവിടെ പക്ഷി നിരീക്ഷകരുടെ സ്വർഗ്ഗം എന്നൊക്കെയാണ് പറയുന്നത് ചോരക്കോഴി പെരുമുണ്ടി കുളക്കൊക്ക് തണ്ണീർപക്ഷി പക്ഷികൾ കുയിൽ കാട്ടുതാറാവ് അങ്ങനെ ഒത്തിരി പക്ഷികൾ നമുക്കിവടെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ യാത്ര കൂടുതലും പ്രകൃതി തണുപ്പ് കായൽ കടൽ കോവളം ബീച്ചൊക്കെ നല്ല നല്ല ഒരു അനുഭവമാണ് നമുക്ക് എപ്പോഴും ഒരു സൺസേ സൂര്യ ഉദയം അല്ലെങ്കിൽ സൂര്യൻ്റെ അസ്തമയം ഒക്കെ കടൽ തീരത്തിരുന്ന് ഇഷ്ടപ്പെട്ടവരോടൊപ്പം കാണാമെന്ന് പറയുന്നത് വളരെ നല്ല ഒരു അനുഭവമാണ് ഇത് കൊണ്ടൊക്കെയാണ് ഇനിയും ഇനിയും ഒത്തിരി യാത്രകൾ ചെയ്യണം എന്നും ഒത്തിരി സ്ഥലങ്ങൾ സന്ദർശിക്കണമെന്നുമുള്ള വ്യക്തിയാണ് അതിലേറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങൾ ഇനിയും സന്ദർശിക്കണം മറ്റേ കൂർഗ് ചിക്ക് മാംഗ്ലൂർ അതുപൊലെ വയനാട് നമ്മൾ എക്സ്പ്ലോറ് ചെയ്യണം പിന്നേ ഡാർജലിങ് കുളു മണാലി ഹിമാലയം യാത്രകൾ അതൊക്കെ ഭാവിയിൽ നടക്കണം നടക്കട്ടേ എന്ന് വിചാരിക്കുന്നു അങ്ങ് ഒത്തിരി ഒത്തിരി യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്